എസ് ഡോക്ടറാ രണ്ട് ദിവസായി പനിയുണ്ട് ചുമ ജലദോഷം

മഴ കൊണ്ടില്ല ഇടയ്ക്കിടക്ക് ഇടവിട്ട് ഇങ്ങനെ പനി ആ കാണിച്ചു മാനന്തവാടി ആ അവര് മരുന്നൊക്കെ തന്നു

സമയം ആ തന്നായിരുന്നു

മരുന്ന് എന്താണെന്ന് ആ കുപ്പി ആയിരുന്നു കുപ്പി ആയിരുന്നു ഇടയ്ക്ക്

ആ മൂന്ന് നേരം എസ് ഉണ്ട് ഉണ്ട്

ആയിക്കോട്ടെ ആ ആ താമസിച്ചല്ലേ ആം എസ് എസ് എസ്

ആം ഒക്കെ കുറവില്ലെങ്കിൽ പറയാം ആം ആം

ആം ഓക്കെ